ഗ്രാമീണരുടെ അഭിപ്രായമെന്നു പറയുമ്പോൾ എന്റെ അപ്പുപ്പൻ കൃഷിക്കാരനായിരുന്നു അപ്പുപ്പൻ ഓരോ ജോലി ചെയ്യുമ്പോൾ നല്ല താളത്തിലൊക്കെയാണ് ചെയ്യുന്ന പാട്ടൊക്കെപ്പാടി നമുക്കു കേട്ടു നിൽക്കാൻ തന്നൊരു മനസ്സിനു തന്നെ ഇപ്പോൾ അപ്സെറ്റായിട്ടിരിക്കുകയാണെങ്കിലും ഒരു സന്തോഷം കിട്ടും നമ്മളും കൂടി കുട്ടത്തിൽ നിന്നു പാടിപ്പോകും പിന്നെ കളിക്കുന്നതിനൊന്നും വിലക്കില്ല അവരും ജോലി ചെയ്യാൻ നേരത്തു പാട്ടു പാടും ഓരോരുത്തരും പാട്ടു പാടി എഞ്ചോയ് ചെയ്താണവരുടെ വർക്ക് ചെ ചെയ്യുന്നത് പിന്നെ കുട്ടികളാണെങ്കിലും ഒ ഓരൊതുങ്ങിയ സ്ഥലത്തിലിരുന്നു ഞാൻ പറഞ്ഞ കണക്ക് സെറ്റോ പന്തുകളിയൊ വല്ലതും കളിച്ച് ഇങ്ങനെ ഇരിക്കും അവരും ഓരോ രീതിയിൽ എഞ്ചോയ് ചെയ്താണ് കളിക്കുന്നത് പിന്നെ പെൺകുട്ടിയാണെ ആൺകുട്ടികളാണെ അങ്ങനൊരു വേർതിരിവൊന്നുമില്ല എല്ലാ എല്ല ആരു കളിച്ചാലും ഒരേ അഭിപ്രായം തന്നെയാണ് ഞാനും കളിക്കും ഇവിടെ അങ്ങ് എന്താ ഞങ്ങളെല്ലാവരും കൂടി കളിക്കും അതിനൊന്നും ഗ്രാമീണർ അങ്ങനെ തെറ്റായിട്ടൊന്നു അഭിപ്രായം പറയത്തില്ല അവരും കളിച്ചോളാനാണ് പറയുന്ന അതൊരു എക്സർസൈസാകും നമ്മുടെ ബോഡിക്ക് നമ്മുടെ ബോടിക്കൊരു എനർജി കിട്ടും മനസ്സിനു സന്തോഷം കുളിർമ്മ അതിലൊക്കെ വെച്ചുനോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെറുതെ ഇരിക്കുന്നതിലും നല്ലതാണ് കളിക്കുന്നത് അല്ല എക്സർസൈസ് ചെയ്യാൻ മടിയുള്ളവരും കളിച്ചു കളിച്ചു എക്സർസൈസ് ചെയ്യുന്നവരുമുണ്ട് എക്സർസൈസ് ചെയ്യാൻ മടിയുള്ളവർ കളിക്കും കളിച്ചു വണ്ണം കുറയ്ക്കും കളിച്ചവരുടെ റിലാക്സേഷൻ കണ്ടെത്തും ഇപ്പോൾ എന്റമ്മയൊക്കെ ആണെ പിള്ളേരുടെ കൂടെ ഞങ്ങളുടെ കൂടെയൊക്കെയിരുന്നു കളിക്കും അപ്പോൾ അമ്മയുടെ പകുതി ടെൻഷനും കുറയും അങ്ങ് എഞ്ചോയ് എഞ്ചോയ് ആകും അമ്മയും കൂടി വരുമ്പം ഇപ്പം നമ്മളുടെ പിള്ളേരുടെ കൂടെ മുതിർന്നവരും കൂടി കളിക്കുന്നൊരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞങ്ങളുടെ അപ്പൂപ്പനൊക്കെയാണെങ്കിലും എന്റെ കൂടെയൊക്കെ വന്നു കളിക്കുകയൊക്കെ ചെയ്യും ആരും എതിർക്കത്തൊന്നുമില്ല വേറെ ആൾക്കാരാണെങ്കിലും ഇവിടെ ഈ ഗ്രാമത്തിലുള്ള ആരാണെങ്കിലും ഞങ് ഞങ്ങളോടിരുന്നു കളിക്കും ഒരു എന്ത് മീൻ പിടിക്കാനൊക്കെ വരും ഒരു ജസ്റ്റ് ഒരു വൈബ് മീൻ പിടുത്തം ഒരു ജോലിയാണെങ്കിലും ചിലരത് അതു ക കളി ജസ്റ്റ് കളി മൈൻറ്റിലൊക്കെ എടുക്കുന്നുള്ള കളിക്കുന്നതിനു ഗ്രാമീണരുടെ അഭിപ്രായം വെച്ചിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അവർക്കിഷ്ടമല്ലെന്നു അവരങ്ങനെ എതിർക്കാറുമില്ല കളി കളിച്ചോട്ടെ പിള്ളേരു കളിച്ചോട്ടെ കളിച്ചു വര അ വളരേണ്ടവരാണ് അല്ലെ ഒതുങ്ങി ഇരിക്കേണ്ടവർ അല്ലെന്നുള്ളയൊരു അഭിപ്രായമാണ് അവർക്ക് അവരാണെങ്കിലും നമ്മുടെ കൂടെ ആണെങ്കിലും കളിയ്ക്കാൻ കൂടും ഇപ്പം നമ്മളെ കളിപ്പിക്കാതിരിക്കത്തില്ല അല്ലെ കളിക്കേണ്ട വീട്ടിൽ ഇരുന്ന മതി പുറത്തോട്ടൊന്നും പോകണ്ട അങ്ങനെ അടി അടച്ചുപൂട്ടിയൊന്നും ഇടത്തില്ല കളിച്ചോട്ടെ എത്രവേണെ കളിച്ചോട്ടെ പിള്ളേരല്ലെ അവരും കൂടി നമ്മളുടെ കൂടെ കളിയ്ക്കാൻ കൂടും അതാണ് എന്റെ അപ്പുപ്പനൊക്കെ എന്നെ കളിക്കാൻ വിടും അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയി കളിക്കും ഞങ്ങളുടെ വീട്ടിലോട്ടും വരും അപ്പോൾ ഗ്രാമീണരുടെ അഭിപ്രായമെന്നു പറഞ്ഞ നല്ലഭിപ്രായമാണ് കളിക്കുന്നത് നല്ലതല്ലെന്നുള്ള ഒരു അഭിപ്രായമാണ് അവർക്കെന്നാണ് ഇത്രയും നാളുമെന്റെ വിശ്വാസം കാരണം എന്നെ കളിപ്പിക്കും